ചിത്ര രചന ആളുകൾക്ക് രോഗ ശാന്തി നൽകുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കരണമെന്തെന്നാൽ വ വയലാർ രാമവർമ അങ്ങനെയുള്ള വലിയ വലിയ ചിത്രകാരന്മാരൊക്കെ വരച്ച ചിത്രങ്ങൾ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വളരെയധികം അർഥങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് ആ അർഥങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വളരെയധികം കഴിവും ആവശ്യമാണ് വലിയ വലിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ വളരെ അത്ഭുതത്തോടെ നോക്കിനിൽക്കാറുണ്ട് എങ്ങനെയാണ് അവരീ ചിത്രങ്ങൾ വരച്ചത് എന്ന് ചിലതൊക്കെ ഫോട്ടോയെടുത്ത് അവിടെ വെച്ചതാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചുപോകും അത്ര മനോഹരമാണ് ചില ചിത്രങ്ങൾ കാണാൻ പേരറിയാത്ത ഒരുപാട് ചിത്രകാരന്മാർ നമ്മുടെ ഈ ലോകത്തുണ്ട് അവരുടെയൊക്കെ ചിത്രങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നുകാണില്ല ഒരു ചിത്രകാരൻ്റെ എറ്റവും വേണ്ട ഒരു കഴിവ് എന്ന് പറയുന്നത് ഞാൻ പറയും ക്ഷമയാണ് ക്ഷമയുണ്ടെങ്കിൽ കലാകാരന് അത്രയും നിരീക്ഷിച്ചുകൊണ്ട് ഒരു ചിത്രം ഭാവനയിലൂടെ വരയ്ക്കാൻ വേണ്ടി സാധിക്കും കഴിവ് എന്തായാലും വേണ്ടൊരു കാര്യം തന്നെയാണ് ഒട്ടുമില്ലാത്ത ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിക്ക് ക്ഷമയും ഭാവനയും ഇണ്ടെങ്കിൽ ഒരു ചിത്രം രൂപീകരിക്കാൻ സാധിക്കുകയില്ല കഴിവുള്ളവനാണല്ലോ ചിത്രം വരയ്ക്കാൻ അവിടെ ശ്രമിക്കുന്നത് ആ ഒരു കഴിവുള്ള ചിത്രകാരന് ഒരു ചിത്രത്തെ ഇനിയും മെച്ചപ്പെടുത്തണമെങ്കിൽ ക്ഷമ വേണമെന്ന് തന്നെ ഞാൻ പറയും അതിനുശേഷം ഭാവന നമ്മൾ മനസ്സിലൊരു ചിത്രമിങ്ങനെ കാണുക മനസ്സിലൊരു ചിത്രം കണ്ടതിനു ശേഷം കഴിവുള്ള ഒരു ചിത്രകാരന് അത് പേ പേപ്പറിൽ പകർത്താൻ വേണ്ടി സാധിക്കും അതുപോലതന്നെ വേറൊരു ചിത്രം കാണുമ്പോൾ നമ്മളത് നന്നായി നിരീക്ഷിക്കുക നിരീക്ഷിക്കുന്നതിലോടെ പല അർഥങ്ങളും നമുക്ക് ലഭ്യമാകും ആ നിരീക്ഷണത്തിലൂടെ നമുക്ക് വേറെ ഒരു ടോപ്പിക് നമുക്ക് കിട്ടും ആ ടോപ്പിക്കിലൂടെ നമുക്ക് വേറൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരു കലാകാരന് വേണ്ടത് ക്ഷമ വേണം അതുപോലതന്നെ നിരീക്ഷണ ശക്തി വളരെ അത്യാവശ്യമാണ് നല്ലൊരു ചിത്രത്തെ നമ്മൾ നിരീക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് പല അർഥങ്ങൾ ലഭ്യമാകും നമ്മുടെ മനസ്സിന് വളരെ ശാന്തത ലഭിക്കുകയും ചെയ്യും കാരണം അത്രയും മനോഹരമായ ഒരു ചിത്രം കാണുമ്പോൾ നമ്മൾ അതിശയിച്ച് അവിടെ നിന്ന് പോകുകയാണ് എങ്ങനെയാണ് ഇതിൽ ഇത്രയും അർഥതോടെ ഇവർക്ക് വരയ്ക്കാൻ കഴിയുക എന്നുള്ളത്